ഒരുപാട് വസ്തുക്കൾ സൃഷിട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിരട്ടയിൽ നിന്ന് പൂക്കൾ വെക്കുന്ന ചട്ടികളായും സ്പൂണുകളായും തവികളായും കൈലുകളായും അതൊക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വീടിൻ്റെ മൂലയിലേക്ക് വെക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വൃത്തിയുള്ള വസ്തുക്കളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാളയിൽ നിന്ന് പാത്രങ്ങൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലതരം രൂപകല്പന ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കരകൗശലത്തെ കൊണ്ട് ചിരട്ടകൊണ്ടും പാളകൊണ്ടും ഓലകൊണ്ട് കുട്ടികൾക്ക് വാച്ചുകൾ ഉണ്ടാക്കുക വളകൾ ഉണ്ടാക്കുക മോതിരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതുകൊണ്ട് വീടുകൾ അലങ്കരിക്കുക കുട്ടികളെ അലങ്കരിക്കുക നിങ്ങൾ വീട് അലങ്കരിക്കാൻ മാക്സിമം ഓലത്തണ്ടു കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഓലക്കായ എന്ന് പറയും ഓലയെ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വീടിൻ്റെ അകവും മുറ്റവും ഒക്കെ കെട്ടിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്